സാങ്കേതികവിദ്യ എന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിലും വിപ്ലവം സൃഷ്ടിച്ചിട്ടുണ്ട് വിദ്യാഭ്യാസം തൊഴിൽ സാധ്യതകൾ സാമൂഹിക ബന്ധങ്ങൾ ആരോഗ്യ സംരക്ഷണം എന്നിവയിൽ സാങ്കേതിക വിദ്യയുടെ പങ്ക് അനിവാര്യമാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം അതാണ് വ്യത്യസ്ത തൊഴിലവസരങ്ങൾ തുറന്നു തരുന്നത് പ്രത്യേകിച്ച് ഇന്ന് കുട്ടികൾ യുവാക്കൾ പ്രായമായവർ എന്നിവർക്കായി ഇൻറ്റർനെറ്റ് കമ്പ്യൂട്ടർ സയൻസ് മൊബൈൽ ആപ്ലിക്കേഷനുകൾ തുടങ്ങിയവ തൊഴിലവസരങ്ങൾക്കുള്ള പുതിയ മാർഗങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് സാങ്കേതികവിദ്യയുടെ പങ്ക് വ്യത്യസ്ത തൊഴിലവസരങ്ങളിൽ എന്ന് നമ്മൾ കാണുമ്പോൾ സാങ്കേതിക വിദ്യ ലോകമാകെ തൊഴിലവസരങ്ങളുടെ ഒരു പുതിയ ലോകം തുറന്ന് തരുന്നത് മുൻപന്തിയിലാണെന്ന് പറയാം ജോലിയുടെ സ്വഭാവം ഇന്നത്തെ കാലത്ത് വളരെയധികം മാറിയിരിക്കുന്നു പുതിയ സോഫ് പുതിയ സ്റ്റോഫ്വെയർ അപ്ലിക്കേഷനുകൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആർട്ടിഫിഷ്യൽ ഇൻ്റെലിജൻസ് ബിഗ് ഡാറ്റ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് റോബോട്ടിക്സ് തുടങ്ങിയ മേഖലയിൽ പരിശീലനം പ്രദാനം ചെയ്യുന്ന കോഴ്സുകൾ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ നൽകുന്നു ഉദാഹരണത്തിന് സ്റ്റാഫ്വെയർ ഡെവലപ്മെൻറ്റിനെക്കുറിച്ച് പറയാം എന്തൊരു സ്ഥാപനങ്ങളും സ്റ്റാഫ്വെയർ സോഫ്റ്റ്വെയർ ആവശ്യങ്ങൾക്കായി സാങ്കേതിക വിദ്യ ഉപയോഗിക്കാറുണ്ട് കമ്പ്യൂട്ടർ പ്രോഗ്രാമുകൾ മൊബൈൽ ആപ്പുകൾ വെബ് ഡെവലപ്മെൻറ്റ് എന്നിവ ഇൽ മികവുള്ള വ്യക്തികൾക്ക് ഉയർന്ന വരുമാനവും തൊഴിലവസരങ്ങളും ലഭിക്കുന്നുണ്ട് ഇതുപോലെ ഡേറ്റാ സയൻസ് ന്യൂറൽ നെറ്റ്വർക്ക് മെഷീൻ ലേണിങ് തുടങ്ങിയ മേഖലയിൽ പഠിക്കുന്ന ജോലികൾക്ക് പുതിയ തലമുറക്ക് വലിയ പ്രചോദനമാണ് പഠിക്കാൻ ഇഷ്ടപ്പെടുന്ന സാങ്കേതിക ബിരുദങ്ങളിലെ നമ്മൾ ഇന്ന് കണ്ടുപിടിക്കേണ്ടതുണ്ട് ഇന്ന് വിദ്യാർത്ഥികൾക്ക് പല സാങ്കേതിക ബിരുദങ്ങൾ പഠിക്കാൻ ആഗ്രഹമുണ്ട് യഥാർത്ഥത്തിൽ സാങ്കേതികവിദ്യ മേഖലകളിൽ ഉയർന്ന മുന്നേറ്റങ്ങൾ കാണുമ്പോൾ പുതിയ ബിരുദങ്ങളുടെയും ഡിപ്ലോമ കോഴ്സുകളെയും ആവശ്യകതെയും വർദ്ധിച്ചു ചില പ്രധാന സാങ്കേതിക ബിരുദദാനങ്ങൾ നമുക്ക് കാണാം ഒന്നാമതായിട്ട് നോക്കുമ്പോൾ കമ്പ്യൂട്ടർ സയൻസ് ബിരുദം അതായത് ബി ടെക്ക് ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ് അങ്ങനെയുള്ള നോക്കുമ്പോൾ നമുക്ക് കമ്പ്യൂട്ടർ സയൻസ് മേഖലയിൽ ബിരുദങ്ങൾ എല്ലാ സമയത്തും ജനപ്രിയമാണ് ഈ ബിരുദവും മൊബൈൽ ആപ്പുകളുടെ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ആപ്ലിക്കേഷനുകൾ എന്ന് പറയുമ്പോൾ ഡെവലപ്മെൻറ്റ് ആപ്ലിക്കേഷൻ പ്രോഗ്രാമിങ് നെറ്റ്വർക്ക് അഡ്മിനി്ട്രേഷൻ തുടങ്ങിയ മേഖലകളിൽ മികച്ച തൊഴിലവസരങ്ങളാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് ഡേറ്റാ സയൻസ് എന്ന ഡേറ്റാ സയൻസ് എന്ന് പറയുന്നത് പി ജി കോഴ്സ് അതായത് നമ്മുടെ ഡേറ്റാ അനലിറ്റിക്സ് പഠിച്ചു കഴിയുമ്പോളാണ് ഡേറ്റാ സയൻസ് എന്ന കോഴ്സ് ഉള്ളത് ഡേറ്റാ സയൻസ് ഡേറ്റാ സയൻസ് എന്നത് ഇന്നത്തെ ലോകത്തിൽ വളരെ പ്രചാരത്തിലുള്ള ഒരു സാങ്കേതിക വിഭാഗമാണ് ബിഗ് ഡേറ്റാ മെഷീൻ ലേണിങ് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലൈസിസ് തുടങ്ങിയ മേഖലകളിൽ പരിശീലനം നൽകുന്നതുകൊണ്ട് വലിയ കമ്പനി ഗ്രൂപ്പുകൾ ഡേറ്റാ സയൻറ്റിസ്റ്റുകളെ ആവശ്യങ്ങൾ ഉയർന്നിട്ടുണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റെലിജൻസ് ആൻഡ് മെഷീൻ ലേർണിംഗ് എ എൽ ആൻഡ് എം എൽ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലിപ്പോൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജോലിസാധ്യത ഏറിയ ഒരു ഒരു ഒരു സംഭവമാണ് അപ്പോൾ നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റെലിജൻസും മെഷീൻ ലേർണിങ്ങും സാങ്കേതിക രംഗത്ത് ഏറ്റവും ശ്രദ്ധേയമായ മേഖലയായതുകൊണ്ട് തന്നെ ഈ മേലയിൽ ബരുദം കമ്പ്യൂട്ടർ സയൻസ് ഓട്ടോമേഷൻ റോബോട്ടിക് ഡിജിറ്റൽ അസിസ്റ്റൻസുകൾ സെൽഫ് ഡ്രൈവിംഗ് കാറുകൾ തുടങ്ങിയ അനവധി വ്യവസായങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ തന്നെ പഠിപ്പിച്ചു വരൂന്നുണ്ട് അതുപോലെത്തന്നെ സൈബർ സെക്യൂരിറ്റി ഇന്നത്തെ കാലത്ത് സൈബർ സെക്യൂരിറ്റി ആക്രമണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ സൈബർ സെക്യൂരിറ്റിക്ക് ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള ഒരു വലിയ തൊഴിലവസരങ്ങളും ഹാക്കിംഗ് ഡേറ്റാ പ്രൈവസി സൈബർ സുരക്ഷിതത്വം എന്നിവയിൽ വിശേഷ പരിശീലനം നൽകുന്ന ബിരുദം ഈ മേഖലയിൽ ഉയർന്ന ആവശ്യകത ഉണ്ട് പിന്നീട് വരുന്നതാണ് വ്യവസായ ഇൻറ്റർനെറ്റ് അതായത് എൽ ഒ ഐ ഒ റ്റീ എന്ന് പറയുന്ന സാങ്കേതികവിദ്യയും ഇന്നത്തെ ലോകത്തെ വളരെയധികം പ്രചാരത്തിലാണ് ഈ മേഖലയിൽ ബിരുദം നേടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മാർട്ട് ഹോം ഓട്ടോമേഷൻ ഹെൽത്ത് ആൻഡ് ഹെൽത്ത് കെയർ ട്രാൻസ്പോർട്ടേഷൻ മേഖലളിൽ നിരവധി തൊഴിലവസരങ്ങളാണ് ലഭിക്കുന്നത് അതായത് ലോജിസ്റ്റിക്സ് എന്നൊക്കെ നമുക്ക് കൂടുതലായിട്ടും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന എല്ല് ഓ റ്റി ആണ് അപ്പം അതിൽ ഏറ്റവും കൂടുതലനുസരിച്ച് ബിരുദം ലഭിക്കുക എന്ന് പറഞ്ഞുകഴിഞ്ഞാൾ അതൊരു ഡിഗ്രി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കമ്പനി വളരെയതികം മൾട്ടിനാഷണൽ കമ്പനീസ് വന്ന് നമ്മെ ഹയർ ചെയ്യാനുള്ള ചാൻസുകൾ കൂടുതലാണ് സാങ്കേതികവിദ്യയുടെ വളർച്ച തൊഴിലവസരങ്ങൾ പഠന വിഷയങ്ങളും ബിരുദങ്ങളുടെ ആവശ്യകത എന്നിവ കാലത്തോടുകൂടി മാറുന്നുണ്ട് അതിനാൽ സ്കൂളുകളിലും സർവശാശാലകളിലും സാങ്കേതികവിദ്യയുടെ ആസ്പദമായ കോഴ്സുകളും ബിരുദങ്ങളും ഇന്നത്തെ വിദ്യാർത്ഥികളുടെ ഭാവിയെ നയിക്കുന്ന ഒരു പ്രധാന വഴിതിരിവാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും കാരണം മൊത്തത്തിൽ സാങ്കേതികവിദ്യയുടെ സാഹചര്യത്തോടെ വ്യത്യസ്ത തൊഴിൽ മേഖലകളിൽ പുതിയ കാര്യങ്ങൾ പങ്ക് കൈക്കൊള്ളുവാനും ലോകമെമ്പാടുമുള്ള അനവധി ജോലികൾ സൃഷ്ടിക്കാനും വിദ്യാർത്ഥികൾക്ക് മികച്ച അവസരങ്ങൾ ലഭിക്കുന്നുണ്ടെന്ന് നമുക്ക് നിശേഷം പറയാൻ സാധിക്കും